നൃത്തം നമ്മുടെ ആരോഗ്യത്തെ ആരോഗ്യത്തെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട് കാരണം നൃത്തത്തിലൂടെ നമ്മുടെ ശരീരവും എല്ലാം നമ്മുടെ കൈകളിൽ എന്താ പറയുക കയ്യിൽ കൂടെ വഴങ്ങും നമുക്ക് നന്നായി ഒരു ഫ്ലെക്സിബിൾ ആയി എന്നാല് എന്താണ് പ്രവൃത്തികൾ ചെയ്യാൻ നമുക്കിതിലൂടെ സാധിക്കും നമ്മളിപ്പോള് കുറേ നേരം വെറുതെ ഇരുന്നുകഴിഞ്ഞാല് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നുപോകത്തേ ഉള്ളൂ നമ്മള്ക്ക് കൈ പൊക്കാനോ കാല് പൊക്കാനോ ഭയങ്കര പാടായിരിക്കും എന്നാൽ നൃത്തം ചെയ്യുന്ന ഒരാൾക്ക് അവർക്ക് ഏത് രീതിയിൽ വേണേലും കൈകളെ കൊണ്ടു പോകാം കാലുകളെ കൊണ്ടു പോകാം അവർക്ക് ഒരു രീതിയിലുള്ള വേദനയോ കാര്യങ്ങളൊന്നും വരത്തില്ല നമ്മളെ ബോഡി എപ്പോഴും ഫിറ്റായിരിക്കും ഒരു രീതിയിലുമുള്ള ക്ഷീണമൊന്നും നമുക്ക് കുറച്ച് നേരം എന്തേലും വർക്ക് ചെയ്താൽ നമുക്ക് തോന്നത്തില്ല നമ്മൾ പൂർണ്ണമായും ഫിറ്റായിരിക്കും നല്ല രീതിയിൽ ഫിറ്റായിരിക്കും ഒരു രീതിയിലുള്ള ക്ഷീണമോ തളർച്ചയോ ഒന്നും നമുക്ക് ഒരിക്കലും തോന്നത്തില്ല അതൊക്കെയാണ് നൃത്തത്തിലൂടെ നമുക്ക് കിട്ടുന്ന കുറച്ച് നല്ല ഗുണങ്ങൾ സന്തോഷം കിട്ടുമോന്ന് ചോദിച്ചാല് സന്തോഷം കിട്ടും കാരണം നമക്കിപ്പോള് നൃത്തം ചെയ്യുന്നൊരാള് ഇത് ചെയ്യ് ഒരു നൃത്തത്തിൽ അയാൾ സന്തോഷവാനാണല്ലേ ഈ ഒരു നൃത്തം ചെയ്യുമ്പോൾ അയാൾക്ക് സന്തോഷം കിട്ടുന്നുണ്ട് അയാൾക്കത് ഇഷ്ടമാണെങ്കിൽ അത് അയാൾക്ക് എന്നും നൃത്തത്തിലൂടെ ഇഷ്ടം തന്നെയായിരിക്കും നൃത്തം എന്നും അയാൾക്ക് ഇഷ്ടമായിരിക്കും ഒരിക്കലും അയാളത് മടുക്കുകയോ അല്ലെങ്കിൽ അത് ചെയ്യാൻ മടിക്കുകയോ അല്ലെ ചെയ്യണോ എന്ന് വിചാരിക്കത്തു പോലുമില്ല അയാൾക്ക് നൃത്തം ചെയ്യണമെന്ന് തോന്നുമ്പോള് അയാൾ നൃത്തം ചെയ്യും കാരണം അതയാൾക്ക് സന്തോഷം തരുന്ന കാര്യമാണെങ്കിൽ അത് അദ്ദേഹം ചെയ്യും ആരോഗ്യവും സന്തോഷവും നൃത്തം പ്രദാനം ചെയ്യുന്നതാണ്